ഞാൻ ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിഗതമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് സ്വന്തമായി ഒരു സ്ഥാപനം നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു സ്ഥാപനം കെട്ടിപ്പടുത്തുയർത്തുക എന്നുള്ളതാണ് ഇതിന് അതായത് ഒരു ആൻഡ്രോയിഡ് ആപ്പ് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തെ വളർത്തി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരിക്കലും മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കുന്ന ആൾ അല്ലാതെ മറ്റുള്ളവർക്ക് പണി നൽകുന്ന ഒരാളായിട്ട് മാറണം എന്നുള്ളൊര് ഐഡിയ ഒരാശയത്തിൽ നിന്നാണ് ഈ ഒരു ആശയം ഉയർത്ത് ഉണ്ടായത് ഇതിനായിട്ട് ചെയ്യുന്നത് ഇതിലോട്ട് ആദ്യം ഒരു പടിയായിട്ട് ചെയ്യുന്നത് സ്വയം കാര്യം പഠിക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഇതിനായിട്ട് വേണ്ട കാര്യങ്ങളെപ്പറ്റി അന്വേഷണം നടത്തുകയും അതിനായിട്ടുള്ള ട്രെയിനിങ്ങ് നേടുകയും ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ ഇതിൻ്റെ കൂടെ ഒപ്പം ചെയ്യുന്നതിനായി കൂട്ടുകാരെയും ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം എന്നുള്ളത് പലരുടേയും ഒരു ആ ആഗ്രഹവും ആശയും ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് ഇന്നിവരെ മുന്നില് എത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നു എൻജിനീയറിംഗിൽ നിന്ന് ഇറങ്ങിയ ശേഷം എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങളേയും മറ്റും മനസ്സിലാക്കിയ ശേഷം സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ അതിനായിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എഞ്ചിനീയറിംഗിന് ശേഷം ഒരു നല്ല സ്ഥാപനത്തിൽ ജോലി നേടുകയും അവിടെ എത്തി നിർത്തി അവരുമായിട്ട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞങ്ങൾ മനസ്സിലാക്ക്കയും ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി അതിൻ്റെ റിസ്കുകളേയും അതിൻ്റെ പ്രവർത്തന രീതികളേയും ഒക്കെപ്പറ്റി അറിയണം അറിഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ കരുതി കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വിശ്വസിക്കുന്നു